ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് മൊബൈൽ ഫോൺ ആണ് ആക്ച്വലി നല്ല സ്റ്റോറേജ് റാം റോം ഒക്കെ ഉണ്ട് അതിനൊന്നും വലിയ പ്രശ്നം ഒന്നുമില്ല പിന്നെ നോക്കുകാണെങ്കിൽ ഞാനിത് ഓൺലൈനിൽ റീവ്യൂ കണ്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പക്ഷേ ഓൺലൈനിൽ റീവ്യൂ തന്ന അത്രേം അതിൻ്റെ ക്യാമറേഡെ ക്ലാരിറ്റി ഒന്നും എനിക്കിതിനകത്ത് കാണാൻ പറ്റുന്നില്ല കാരണം അവരതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ഹാ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മീറ്ററിലൊക്കെയുള്ള സാധനം നന്നായിട്ട് സൂമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൈൻസ് ഒന്നുമില്ലാണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന് പക്ഷേ ഞാൻ ചെയ്തു നോക്കുമ്പം എനിക്കത് അത്ര വലിയ ഇതൊന്നും അങ്ങനൊന്നും തോന്നുന്നില്ല പിന്നതെപ്പോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറക്ക് ഒട്ടും ക്ലിയർ ഇല്ല ഒരു ഒരു സ്മോക്കി എഫക്റ്റാണ് പുകമയം മൂടിയപോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ക്യാമറയിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തന്നെ പറയണം ക്ലാരിറ്റി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്രെയും ആണെനിക്ക് പറയാനുള്ളത് പിന്നെ ഫോണ് കളർ ഒന്നും വലിയ കുഴപ്പമില്ല അത്യാവശ്യം സ്ലിം ഒക്കെ ആണ് പിന്നെ ഇതിൻ്റെ ചാർജിങ് ഞാനിപ്പോൾ ഒരു ഒരു ടൂ ടു ത്രീ അല്ലെങ്കിൽ ഒരു ത്രീ ബൈ ഹാഫ് ഒക്കെ വേണം ഇതൊന്ന് ചാർജ് ഫുള്ളാകാൻ തന്നെ പക്ഷേ ഞാൻ ചാർജ് ചെയ്യുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നതാണ് സത്യത്തിൽ പറയാൻ കാരണം ഞാൻ ചാർജ് ചെയ്തൊരു ടൂ ഹവേഴ്സ് ഒരു ടൂ ടു ട്രീ ഹവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ബാറ്ററി നന്നായിട്ട് കുറയുന്നുണ്ട് ചാർജ് തീരെ നിൽക്കുന്നില്ല പിന്നെ അത്യാവശ്യം ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണ് ഗെയിം ഒക്കെ കളിയ്ക്കാൻ സ്മൂത്ത് ആണെന്ന് ഒക്കെയാണ് റിവ്യൂ ഓൺലൈൻ റിവ്യൂസ് ഞാൻ കണ്ടതൊക്കെ ഇത് നല്ല രീതിയിൽ ഗെയിം ഒക്കെ കളിയ്ക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ ഗെയിം കളിക്കുമ്പം എനിക്ക് തീരെ പറ്റുന്നില്ല ഇതൊട്ടും സ്മൂത്തല്ല ഗെയിമിംഗ് ഗെയിമിംഗ് എന്നൊരു ഓപ്ഷനെ അതിനകത്ത് എടുക്കുമ്പഴേ തന്നെ ഫോൺ ഫുള്ളി ഹാങ്ങ് ആവാണ് പിന്നെ അതെന്നെ എല്ലാ ഫോണും നന്നായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഞാനൊരു ഒരു ഒരു മണിക്കൂർ ഗെയിം കളിക്കുമ്പോൾ തന്നെ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ട് ഞാനെന്നിട്ട് പിന്നെ കുറച്ച് നേരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതേപോലെ ഹാങ്ങും ആവുന്നുണ്ട് സൊ ഞാനത് എൻ്റെ ഈ ഇതിനോടൊക്കെ എനിക്ക് അത്രേം വലിയ ഒരു യോജിപ്പൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ഓവറോൾ പറയാണെങ്കിൽ എനിക്ക് നോക്കീട്ട് സ്റ്റോറേജ് മാത്രമാണ് ഇച്ചിരി ഒരു നന്നായിട്ട് തോന്നിയത് പക്ഷേ ബാക്കി ക്യാമറയാണെങ്കിലും അതുപോലെ ചാർജിങ് പിന്നെ ഹീറ്റ് ആവുന്നുണ്ട് പിന്നെ അധികം സ്മൂത്തല്ല ഗെയിം ഒന്നും കളിച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ അധികം യൂസ് ചെയ്യാൻ അത്ര സ്മൂത്തല്ല എനിക്ക് നല്ല രീതിയിൽ ഇതിനെ നെഗറ്റീവ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ട് ഇരിക്കുന്നത് എനിക്ക് പോസിറ്റീവ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് ഒന്നോ രണ്ടോ പോസിറ്റീവ് ഉണ്ട് സ്റ്റോറേജ് ഒക്കെ ഓക്കേയാണ് പക്ഷേ അയാം നോട്ട് സാറ്റിസ്ഫൈഡ് എനിക്കത് തീരെ വലിയ ഒരു ഇഷ്ട്ടവായിട്ടില്ല